ഈ കഴിഞ്ഞ വർഷത്തില് അവിസ്മരണീയമായിട്ടുള്ള പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമ്മള് ഈ അടുത്തൊന്നും ഒരു ട്രിപ്പും കാര്യങ്ങളക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്നൊരു ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നടന്നത് കൊണ്ട് അപ്പോൾ എനിക്ക് തലക്ക് നല്ല രീതിയിലുള്ളൊരു ഹെഡ് ഇഞ്ച്വറീം കാര്യങ്ങളക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവറി ആവാൻ വേണ്ടീട്ട് കുറെ ടൈമും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ കാലിന് ചെറുതായിട്ടൊരു പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ബൈക്കിൽ നിന്നുള്ളൊരു ആക്സിഡന്റായിരുന്നു ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയിരുന്നു പോയത് അപ്പം അത് നടന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ തൃശ്ശൂര് ഹൈവേയിൽ വച്ചായിരുന്നു നടന്നത് അപ്പോൾ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുക ഉണ്ടായിരുന്നു പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മള് ഒരു ധനസഹായവും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഞാന് ഒരു പത്രത്തിലൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ തലക്കുള്ളൊരു അതായത് ഒരിതും നമ്മുടെ സർജ്ജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് റെഡി ആയത്